ഇപ്പോൾ എങ്ങനെ മണി സേവ് ചെയ്യാന്നൊക്കെ ചോദിച്ച് വന്നാൽ നമുക്കിൻഷുറൻസായിട്ട് സെവ് ചെയ്യാം പിന്നെ ബാങ്കിലെ സേവിങ്ങ് അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഓരോ ബാങ്കിൽ നമുക്ക് പ്രൊഡക്ട് ലോൺ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പോയിൻറ് നമ്മൾ ഒരു പ്രൊഡക്ട് എടുത്ത് പറഞ്ഞാൽ അതിൻറ്റെകൂടെ ഒരു പോയിൻറ്റ് ഏഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ലോൺ തരാറുണ്ട് കുറേ മേത്തേടുകളുണ്ട് സേവ് ചെയ്യാനുള്ള കുറേ മെത്തേടുകളുണ്ട് ഞമ്മൾ കൂടുതൽ ഞമ്മൾ സേവ് ചെയ്യുന്നതിനെ കാട്ടിലും കൂടുതൽ ഞമ്മളുടെ അത് ചിലവീയാണ് കൂടുതൽ പക്ഷെ അതൊരു പത്ത് രൂപയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഉപകാരം തന്നെയാണ് ഇപ്പോൾ ഇൻഷുറൻസെന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസുണ്ട് വെറും ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് അങ്ങനെ കുറേ ഇൻഷുറൻസുണ്ട് ഇൻഷുറൻസുകളുണ്ട് ബൈക്കിനിപ്പോൾ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചുവെന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസുകളുണ്ട് പിന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസുണ്ട് അത് ഞമ്മക്ക് അടച്ച് ഞമ്മൾ അടച്ച് കുറേ കാലം കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇത് ഒരു ഇൻഷുറൻസാണ് ലൈഫ് ഇൻഷുറൻസെന്ന് പറയുന്നത് പിന്നെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സേവിങ്ങ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും പോസ്റ്റ് ഓഫീസിൽ ഇത്പോലെ തന്നെ ഞമ്മൾ ഓരോ മാസം ഓരോ ഫിക്സഡ് എമൗണ്ട് പേ ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബാങ്കിൽ സേവിങ്ങ് അക്കൗണ്ട് സേവിങ്ങ് അക്കൗണ്ട് അത് ഇത്പോലെത്തന്നെ ഫിക്സെഡായിട്ടൊള്ളൊരു എമൗണ്ട് മന്ത്ലി പേ ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടാണ് ഈ സേവിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻഷുറൻസിലൂടെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ ചെലവെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം എന്നാണ് ഇപ്പോഴുള്ള ലോകത്തെ എല്ലാവരും പറഞ്ഞ് തരുന്നത് അത്കൊണ്ട് തന്നെ സേവ് ചെയ്യാനും അത് പോസ്റ്റ് ഓഫീസിലാണെങ്കിലും അത് ബാങ്കിലാണെങ്കിലും ഏത് ലോൺസിനാണെങ്കിലും അത് സേവ് ചെയ്യാനാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാരും ശ്രമിക്കുന്നത്